വാർത്തകൾ വാർത്തകളെന്നു പറയുമ്പോൾ പണ്ടത്തെ കാലമൊക്കെ നമുക്ക് ഈ ഒരു ന്യൂസ് അറിയണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ലെറ്റർ എഴുതിയിട്ടും പോസ്റ്റ് അയച്ചിട്ടും പിന്നെ അതു പോലെ തന്നെ അങ്ങനെ ആയിരുന്നു പണ്ട് ഈ ഓലയിൽ സംതിങ് അതൊക്കെ എഴുതിയല്ലേ അതങ്ങ് ഒരു ന്യൂസുണ്ടെങ്കിൽ അതു പാസ്സ് ചെയ്യുന്നത് പിന്നെ അത് കുറച്ചും കൂടി ആയപ്പോൾ റേഡിയോ ആയി റേഡിയോ ആയി റേഡിയോലിങ്ങനെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം കവർ ചെയ്യുന്ന പ്ലേസിൽ നിന്നുള്ള വാർത്തകളൊക്കെ എല്ലാവരും കേൾക്കുമായിരുന്നു അതൊക്കെ അവർ ആയിട്ട് അറ അങ്ങനത്തെ സെറ്റ് അപ്പിലായിരുന്നു പിന്നെ കുറച്ചും കൂടി ഹ്യൂമൻസൊക്കെ ഡെവലപ്പായതു കഴഞ്ഞിട്ടായിരുന്നു ഓരോരോ ടി വി ന്യൂസ് ചാനൽസായിട്ടു വന്നത് അങ്ങനെ കുറേ ഈ ടി വി ഇപ്പം തന്ന അറുപത്തെട്ട് സംതിങ് ന്യൂസ് ഈ കേരളത്തിലുണ്ട് അപ്പം ഈ ഇതു കൊണ്ടുള്ള യൂസെന്നായെന്നു വെച്ചു കഴിഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല കുറേ യൂസുണ്ട് അതായത് ഒരു ദിവസം ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ ന്യൂസും അത്യാവശ്യം വരുന്ന ക്രിമിനൽ ആയിക്കോട്ടേ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ നമുക്ക് ഒരു മനുഷ്യനാവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കറിയാൻ ഈ വാർത്തകൾ നമുക്ക് യൂസാകുന്നുണ്ട് ഈ ഒരു വാർത്തയെന്നു പറയുമ്പോൾ കൂടുതലായിട്ട് പിള്ളേർക്ക് യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ലെവൽസാണ് അതുപോലത്തെ പഠിച്ച് ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ജോബ് ഓഫറൊക്കെ കിട്ടുന്നത് അങ്ങനെ കുറേ ഇതുണ്ട് ഒരു ന്യൂസെന്നു പറയുമ്പം ആദ്യം പ്രധാന വാർത്തകളൊക്കെ പറയും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഓഫ് ഒരു പ്ലേസിൻ്റെ ഇപ്പോഴൊരു ഇടുക്കിയാണെങ്കിൽ ഇടുക്കിയിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറയും അതു കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫെന്നു പറയുമ്പോൾ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും തേർഡ് ഹാഫെന്നു പറയുമ്പോൾ അതു കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഇപ്പം ചർച്ചയിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ലാസ്റ്റ് എൻഡോഫിൽ ഇതുപോലെ തന്നെ എഡ്യൂക്കേഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഫണ്ണായിട്ടിരുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ അതുപോലെ തന്നെ ഒരു ഒരു ന്യൂസ് വാർത്തകളും സത്യങ്ങളും ആയിരിക്കും അല്ലാതെ ജസ്റ്റ് തള്ളി മറിക്കുന്നതും ഒക്കെ ആയിരിക്കും എക്സാമ്പിളെന്നു പറയുമ്പോൾ ഇപ്പം ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സൈഡിൽ നിന്ന് അവർക്ക് നല്ലൊരു എവിഡൻസ് കിട്ടി കിട്ടിയിട്ടുണ്ടാകും പക്ഷേ കിട്ടിയ എവിഡൻസ് വെച്ചിട്ടല്ല വാർത്തകൾ പുറത്തു വരുന്നത് അവർക്കു തോന്നുന്നത് അവർ എഴുതും അതെല്ലാവരും വായിക്കുന്നതല്ലേ അവരത് വിശ്വസിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സൊ മേ ബി ചില വാർത്തകൾ സത്യങ്ങളായിരിക്കും ചില വാർത്തകൾ ഫേക്കുമായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാം വേണ്ടി ഈ ന്യൂസ് ചാനൽസൊക്കെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും പക്ഷേ ഇതിൽ പകുതി എഫേർട്ട് പോലും കാണിക്കാറില്ല ഇപ്പോഴത്തെ ജനറേഷൻ പീപ്പിൾസൊക്കെ കിഡ്സൊക്കെ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ പറയുമ്പോൾ അവർ വായിക്കത്തില്ല ജസ്റ്റ് അവർ വരുന്നത് ഈ കാർട്ടൂൺസും പേപ്പറിൽ വരുന്ന കാർട്ടൂൺ ഇമോജീസ് പിന്നെന്തെങ്കിലും കഥകളൊക്കെ വായിച്ചിട്ട് അവർ പോകും പക്ഷെ ഒരു മനുഷ്യൻ ഒരു ദിവസം നടക്കുന്ന എല്ലാ കാര്യം അരിഞ്ഞ് അറിയണം അതിനു വേണ്ടി മേ ബി എല്ലാവരും ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നു ന്യൂസൊക്കെ കേൾക്കണം സോഷ്യൽ മീഡിയാസ് അങ്ങനെ എല്ലാറ്റിലും അപ്പപ്പം അപ്ഡേറ്റല്ലേ അപ്പം എല്ലാം കൂടി കവർ ചെയ്ത് എല്ലാം കൂടി കേട്ടിരിക്കണം ഈ ഇപ്പോഴത്തെ ജൻറേഷൻ കിഡ്സിനോട് വാർത്തകളെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളത് അതായത് ഒരു വാർത്തയെന്നു പറയുമ്പോൾ അത് ലൈക് ബി ചിലവർക്ക് അത് യൂസ്ഫുള്ളായിരിക്കും ചിലവർക്ക് അത് ഭയങ്കര ഇതായിരിക്കും അപ്പോൾ വാർത്തകളിൽ നല്ലതുമുണ്ട് മേ ബി നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും സോ നല്ല കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക ചീത്ത കാര്യങ്ങളൊക്കെ വിടുക ഇത്രയേയുള്ളു പറയാൻ എല്ലാ ന്യൂസും ഒരുപോലെ തന്നെ ആകണമെന്നല്ല ഇപ്പോൾ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിനെ തന്നെ പല രീതിക്ക് പല മീഡിയാസ് പറയും അപ്പോൾ എല്ലാം മേ ബി കൺട്രോൾ ചെയ്ത് കൊണ്ടു പോകണം ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കുന്നത് കൊണ്ട് നമുക്ക് വായനശീലം കൂടും സോ പിന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും ഈ ലോകത്തിൽ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എങ്ങനെയാണെന്ന് എല്ലാ കാര്യം അറിയാൻ യൂസ്ഫള്ളായിരിക്കും അത് അല്ലാണ്ട് ഇവിടെ നടക്കുന്നതു മാത്രമല്ല ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും ഒരു വാർത്ത കേൾക്കുമ്പോഴും അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുമ്പോഴും